ആ ഞാൻ ബാങ്കിൽ അല്ലാണ്ട് ഇപ്പോൾ ആകെക്കൂടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ പറയുക ഈ എം ഐ അടക്കാൻ ഞാൻ എച്ച് ഡി എഫ് സി ഫിനാൻസിൽ നിന്നാണ് ലോൺ എടുത്തിരിക്കുന്നത് പിന്നെ വൺ മൊബൈൽ ഫോണില് ലോൺ എടുത്തിട്ടുണ്ട് ഗോൾഡ് ലോലാണ് അത് ഞാന് യൂസ് ചെയ്യുന്നത് മുത്തൂറ്റിൻ്റെ ഗോൾഡ് വയ്ക്കാറുണ്ട് ഞാൻ പലിശ കൂടുതലാണെങ്കിൽ പോലും പെട്ടെന്ന് പോയി എടുത്തു കൊണ്ടുവരാൻ ഉള്ള സൗകര്യങ്ങളായതു കൊണ്ട് നല്ല ഒരു എമൗണ്ട് കിട്ടുന്നതായതുകൊണ്ട് നമുക്ക് അവര് പെട്ടെന്ന് പൈസ തരുന്നത് കൊണ്ടും ഞാൻ അവിടെ കൊണ്ടുപോയി വയ്ക്കാറുണ്ട്